എൻ്റെ പ്രിയപ്പെട്ട പത്രം എന്ന് പറയുന്നത് മാതൃഭൂമിയാണ് അത് അതിൻ്റെ ഒന്നാമത്തെ കാരണം കാലങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ വരുത്തുന്ന പത്രം എന്നു പറയുന്നത് മാതൃഭൂമി ദിനപ്പത്രം ആയതിനാലും നമ്മളുടെ ഒരു ശീലമായതിനാലും പലസമയങ്ങളിൽ ഈ പത്രം മാറ്റി വേറൊരു പത്രം ഇടേണ്ട കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചപ്പോൾ നമ്മൾ പറയാനുള്ളത് എന്താണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ വേറെ പത്രം വേണമെങ്കിൽ വരുത്താം പക്ഷെ മാതൃഭൂമി മാറ്റാനായിട്ട് കഴിയില്ല്യ എന്നുള്ളൊരു അവസ്ഥയാണ് അതായത് അതൊരു വർഷങ്ങളായിട്ടുള്ള ഒരു ശീലമാണ് ഒന്നാമത്തെ കാരണം വർഷങ്ങളായിട്ടുള്ള ഒരു ശീലമാണ് പിന്നെ രണ്ടാമത് എനിക്ക് കുറച്ചും കൂടി ഭേദപ്പെട്ട രീതിയിൽ വാർത്തകളെ അവതരിപ്പിക്കുന്നു എന്ന് തോന്നിയിട്ടുള്ളത് മാതൃഭൂമിയാണ് അവരുടെ ഒരു എഴുത്തുശൈലിയും അവരുടെ നമുക്ക് ഇപ്പോൾ ശീലം എന്നു പറഞ്ഞല്ലോ വർഷങ്ങളായിട്ടുള്ള ശീലങ്ങളുടെ ഭാഗമായിട്ട് എത്തരത്തിലാണോ വാർത്തകൾ അതിൽ അച്ചടിക്കപ്പെടുന്നത് ഏതു പേജിൽ നോക്കിയാൽ എത്തരത്തിൽ കാണാൻ പറ്റും അതിൻ്റെ അതിൻ്റെ എല്ലാ എല്ലാ ഭാഗങ്ങളും എല്ലാ സ്റ്റൈലുകളും നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഉപബോധ മനസ്സിലും ബോധം ഉള്ള മനസ്സിലും ഒക്കെ രജിസ്റ്റേർഡ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ അത് ആ അതൊരു പ്രിയപ്പെട്ട പത്രമാണ്